ഞങ്ങളുടെ പ്രദേശത്തെ ഞങ്ങൾ കുറെ ആള്ക്കാർ കൂടി ഒരു സംഘടനയുടെ കീഴിൽ തയ്യൽ പഠിക്ക്യാ ചെയ്തത് കൈ കൊണ്ട് തയ്ക്കാനായിട്ട് നമുക്കറിയാമെങ്കിൽ പോലും മിഷനി തയ്ക്കാനായിട്ട് ഞങ്ങളെല്ലാവരും പഠിച്ചു അതുകൊണ്ട് അവനവന്റെ ആവശ്യത്തിനുള്ള ഡ്രസ്സക്കെ തയ്ച്ചെടുക്കാനായിട്ട് നമുക്കൊക്കെ അറിയുന്നുണ്ട് പരമ്പരാഗത രീതിയിലുള്ളത് പണ്ട് ഇവിടെ എല്ലാവരും സാരീടെ ബ്ലൗസാണ് അത് തയ്ക്കാന് പഠിച്ചു പിന്നെ ചട്ട തയ്ക്കുന്നത് ഇപ്പോഴാരും ഉപയോഗിക്കാറില്ലെങ്കിലും ഒരു പരമ്പരാഗത വേഷമായ ചട്ട തയ്ക്കാനായിട്ട് പഠിച്ചു പിന്നെ പിന്നെ രീതി കൂടുതലും എല്ലാവരും മിഷന് ഓട് മെഷ്യനെ മിഷനില് ചവിട്ടി ചവിട്ടി കൊടുത്ത് തയ്ക്കുന്ന രീതിയാണ് കൂടുതലായിട്ടും എങ്കിലും ഇപ്പോൾ പിന്നെ പുതിയ രീതി എന്ന് പറഞ്ഞാൽ ഇലെക്ട്രിക്കായിട്ട് ഉപയോഗിക്കുന്ന മെഷിന്സൊണ്ട് മോട്ടറ് വെച്ച് ചെയ്യുമ്പം നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ കൂടുതൽ വര്ക്ക്കൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് പിന്നെ എംബ്രോയ്ഡറി വര്ക്ക്കൾ ചെയ്യാനും ഒക്കെ മിഷ്യന് സഹായിക്കുന്നു നേരത്തേയൊക്കെ അതെല്ലാം നമ്മൾ കൈ കൊണ്ട് ചെയ്യുമായിരുന്നു കൈ കൊണ്ട് അത് ചെയ്യുന്ന വര്ക്കുമുണ്ട് കൂടുതലും വശം മെഷിന് യൂസ് ചെയ്താണ് ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നു